ഇപ്പോൾ നമ്മുടെ വീട്ടില് വരുന്ന അതിഥികളെ നമ്മൾ കൂടുതലായിട്ടും സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചായയും പലഹാരങ്ങളും കൊടുത്തിട്ടാണ് ആദ്യമായിട്ട് നമ്മള് സ്വികരിക്കുക അവരോട് കയറി ഇരിക്കാൻ പറഞ്ഞ ശേഷം അപ്പം നമ്മളത് ചെയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ചായയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാലില്ലങ്കിൽ നമ്മള് താഴെ പോയിട്ട് പാല് പാക്കറ്റ് പാലോ ഇപ്പോൾ ആ സൊസൈറ്റിയിൽ അളക്കുന്ന ഒരു സമയം ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് അവിടെ പോയിട്ട് വാങ്ങിയിട്ട് പാലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് വന്നിട്ട് നല്ലൊരു ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും ചായ കുടിക്കാത്തവർ ആണെങ്കിൽ അവർക്ക് കാപ്പി ആണെങ്കിൽ കാപ്പി ചൂട് വെള്ളം ആണെങ്കിൽ ചൂട് വെള്ളം അത് നമ്മൾ കൊടുത്തിരിക്കും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അതിഥികളെ നമ്മള് അവര് എന്താണോ പറയുന്നത് അത് നമ്മള് കേക്കണം എന്നാണ് നമ്മുടെ പൂർവികാരാണെങ്കിലും നമുക്ക് അത് പഠിച്ചിരിക്കുന്നത് അപ്പ അത് നമ്മള് മെയിനായിട്ട് ചെയ്യണം അപ്പം അത് നല്ല രീതിയിൽ ചെയ്തിട്ട് ഇപ്പോൾ പലഹാരങ്ങള് ചിലപ്പോൾ നമ്മള് ഉണ്ടാക്കിയാതായിരിക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതായിരിക്കാം നമ്മള് അത് നല്ല രീതിയില് അവർക്ക് ചെയ്ത് കൊടുക്കാമെന്നാണ് നമ്മളെ ആദ്യത്തെ ഒരു കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് ഉച്ച ആ സമയത്ത് ഒക്കെ ആണെങ്കില് നമുക്ക് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ബിരിയാണി കാര്യങ്ങൾ ഒന്നും വെക്കാൻ സാധിക്കില്ല അപ്പം നമ്മള് നമ്മളുടെ വീട്ടിൽ എന്താണോ അത് നല്ല രീതിയിൽ നമ്മള് ചെയ്തു കൊടുക്കും